മുതിർന്ന പൗരന്മാർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു വസ്തുവാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യമാണെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാകും പക്ഷേ നമ്മൾ അത് ഉപയോഗിച്ച് വരുമ്പോഴേക്കും നമുക്ക് അത് എളുപ്പമാകും അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ പണ്ട് എല്ലാവരും വിറകടുപ്പിലായിരുന്നു പാചകം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അത് അതിന് ശേഷം അത് ഗ്യാസ് വന്നപ്പം എല്ലാവർക്കും പേടിയായിരുന്നു അത് പൊട്ടി തെറിക്കുമോ ഇങ്ങനെയുള്ള അപകടങ്ങളതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാരണം വേണ്ട എന്ന് തന്നെ വീട്ടമ്മമാർ തന്നെ പറയാൻ തുടങ്ങി അതിന് ശേഷം മക്കൾ ഒക്കെ ഒരുവിധം ആയപ്പോൾ അവർ എല്ലാ വീട്ടിലും അതുകൊണ്ട് നമ്മൾ അത് എടുക്ക് നമുക്ക് എളുപ്പമാണ് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് അവർ അത് എടുക്കാൻ തുടങ്ങിയത് എന്നാലും അതിലേക്ക് മൊത്തത്തിൽ പാചകം ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർ അത് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല പക്ഷേ ഇന്ന് എല്ലാവരും എത്ര പ്രായമുള്ളവരാണെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ട് അത്രയുമേ ഉളളൂ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചിലർക്ക് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അവരുടെ ഒരു ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇപ്പം മലയാളം ആണ് ഉപയോഗിക്കുന്നവർക്ക് മലയാളത്തിൻ്റെ രീതിയിൽ കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാവുന്നതേ ഉളളൂ ഫോണിൽ ആണെങ്കിലും മിക്കവരും ഭാഷ ചേഞ്ച് ചെയ്ത് മലയാള ഭാഷയിലാണ് അവരുടെ പേരുകൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഒക്കെ അപ്പം അവർക്ക് അത് വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ അല്ലാതെ ഉപയോഗിക്കുന്ന നമുക്ക് അവരുടെ രീതിയിൽ കോൺടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത്രയേ ഉളളൂ അവർക്കും അവർ ചെയ്ത് ശീലിച്ചതുകൊണ്ട് അവർക്ക് അത് എളുപ്പം പിന്നെ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ട് പിന്നെ ചില സാങ്കേതിക വിദ്യകളിൽ നമ്മൾ പോയിൻറ് ചെയ്യുന്നത് എന്താണെന്ന് മലയാളത്തിൽ കാണിക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഓരോ ആരോ എന്തിനാണ് കാണുന്നത് ഇപ്പം ആരോയിൽ കൊണ്ടുവരുമ്പോൾ മുകളിൽ ഒരു കമൻറ് പോലെ വലത്തേക്ക് പോകാനുള്ളതാണ് എന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പുറത്തോട്ടുള്ള ആരോ ഇടത്തേക്ക് പോകാനുള്ളതാണ് എന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബട്ടൺ അത് ഓഫ് ചെയ്യാനുള്ളതാണെന്ന് അതായത് ആ ബട്ടണിലേക്ക് നമ്മൾ കൈ കൊണ്ടുവരുമ്പോൾ മുകളിലൊരു കമൻറ് കാണുവാണെങ്കിൽ ഒരുപക്ഷേ അവർക്കത് കണ്ട് ചെയ്യാൻ പറ്റും അതായത് അവരുടെ ഭാഷയിൽ ഉള്ളൊരു കമൻറ് ആ കീയ്ക്ക് മുകളിൽ വരുവാണെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റും അത് അതായിരിക്കും അവരുടെ ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഭാഷയുടെ പ്രശ്നമുണ്ടായിരിക്കാം പിന്ന ഇത് ഇനിയും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമാകുമോ എന്തെങ്കിലും ഇത് വരുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ അവർക്കത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു വീട്ടിലുള്ളവർ ആണെങ്കിലും ചെറിയ രീതിയിലൊരു സപ്പോർട്ട് കൊടുത്ത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ അതിൽ അവർ ഓക്കെ ആകും കാരണം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ ഈ കണ്ട് റീൽസും കണ്ട് നമ്മൾ ടൈം കളയുന്നത് പോലെ അവർക്ക് അത് അറിയാത്തതുകൊണ്ട് അവർ ഇരിക്കുന്നില്ല അവരെ കാണിച്ച് കൊടുത്താൽ ഒരുപക്ഷേ അവരും അതിന് മുന്നിൽ ഇരിക്കും പണ്ട് കാലത്ത് ടി വി എന്ന് വെച്ചാൽ വളരെ അപൂർവ്വമായി മാത്രമേ ടി വിയിലെ പരിപാടി ആരും കാണുന്നുടി വി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓൺ ആണ് അതിൽ പ്രായമുള്ളവരും കൊച്ചുകുട്ടികളും എല്ലാവരും കാണുന്നുണ്ട് അപ്പം നമുക്ക് ഓരോരുത്തരെ ഉപയോഗിക്കുന്നതിൻ്റെ രീതി അറിയാത്തിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം അവർക്ക് അവർ അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത് അപ്പം അത് കണക്ക് തന്നെ ഇപ്പം ഗൂഗിൾ പേ ഓൺലൈൻ പെയ്മെൻറുകൾ ചെയ്യാൻ അവരെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കും അത് ചെയ്യാൻ പറ്റും അപ്പം നമ്മളെ ഒരു പ്രായമാണ് അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ പോരായ്മ ആയതുകൊണ്ടാണ് അവർ അതിലൊന്നും മുന്നോട്ട് വരാത്തത് അല്ലെങ്കിൽ എത്തിപ്പെടാത്തത് അല്ലെങ്കിൽ അവർ പ്രായമുള്ളവർ അല്ലേ അവർക്ക് സാദാ ഫോൺ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഫോണിൽ വിളിച്ചാൽ മതി എന്നുള്ള നമ്മുടെ ചിന്താഗതി കൊണ്ടാണ് അവർ അങ്ങനെ ആകുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ